ആ പഴയ മാധ്യമങ്ങളും നവമാധ്യമങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് എനിക്ക് പറയാൻ സാധിക്കത്തില്ല കാരണം പണ്ട് ഞാൻ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് മാധ്യമങ്ങളൊക്കെ വളരെയധികം കുറവായിരുന്നു അതുകൊണ്ടുതന്നെ ദൂരദർശൻ അതു പോലെയുള്ള ചാനലുകളും മാത്രം കണ്ടിട്ടാണ് നമ്മൾ വളർന്നത് പിന്നെ പത്രമാധ്യമങ്ങളാണ് കൂടുതലായിട്ടുണ്ടായിരുന്നത് ഈ പത്രമാധ്യമങ്ങളാണെങ്കിലും ഇന്നുള്ളതിനെ ഇന്നുള്ള അത്രയും വ്യാജവാർത്തകളോ അല്ലെങ്കിൽ മോശം രീതിയിലുള്ള വാർത്തകളോ കൊടുക്കാറുണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു അതാണ് എനിക്ക് ഉണ്ടാ തോന്നുന്ന വലിയൊരു വ്യത്യാസം ഇന്നിപ്പം കാലത്തിനനുസരിച്ച് എല്ലാവരും മത്സരിച്ചു വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഏതൊരു ചെറിയ ഒരു കാര്യം വന്നാലും ഓരോ ഓരോ നമ്മുടെ രാഷ്ട്രീയം നാമ് അല്ലെങ്ങിൽ നമ്മള് വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന് അനുകൂലമായിട്ടാണ് വാർത്തയെ മാറ്റി വളരെയധികം പൊടിപ്പും തൊങ്ങലും വെച്ച് ഒരു വാർത്തകൾ മ സമൂഹത്തിലേയ്ക്ക് എത്തിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാ ചാനലുകളും ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഒരു നല്ല പ്രവണതയായിട്ടും ഞാൻ വിശ്വസിക്കുന്നുമില്ല